ഒരു സംരംഭം തുടങ്ങുന്നതിന് നമ്മുടെ കൈയിൽ മൂലധനം ആവശ്യമാണ് അത് നമ്മൾ ഏത് സംരംഭമാണ് തുടങ്ങുന്നത് അത് അനുസരിച്ചുള്ള മൂലധനം നമുക്ക് വേണം ഇപ്പം ചെറിയ തരത്തിലുള്ള ബിസിനസാണ് തുടങ്ങുന്നതെങ്കിൽ അത് അനുസരിസിച്ചുള്ളത് പിന്നെ മാനസികമായിട്ട് ഒരു ഒരുക്കം വേണം നമുക്ക് അതിനുള്ള ഒരു മാനസികമായി ഒരുക്കം വേണം അതു പോലെ തയ്യാറെടുപ്പുകൾ വേണം എങ്ങനെയാണെന്നുള്ള അതിനെപ്പറ്റി കുറേ എങ്കിലും നമുക്ക് ഒരു ഗ്രാഹ്യം വേണം എന്നാലേ ബിസിനസ് മുന്നോട്ടു പോവുകയുള്ളൂ ബിസിനസ് വരവ് അനുസരിച്ചുള്ള നമ്മുടെ മേഖലയിൽ എന്താണ് ചിലവാകുന്നത് നമ്മൾ എന്ത് കൊണ്ട് വന്നാൽ ഇവിടെ ചിലവാകും ഏത് ബിസിനസാണ് ഇവിടെ മുന്നോട്ട് പോവുക അത് അനുസരിച്ചുള്ള സാധനങ്ങൾ കൊടുക്കുന്നതായിരിക്കും ബിസിനസ് മുന്നോട്ട് പോകാൻ നല്ലത് അതുപോലെ ലാഭം കുറച്ച് എടുത്ത് പിന്ന ബിസിനസ് കൂടുതൽ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു നേട്ടമാണ് പിന്നെ ബിസിനസിന് മൂലധനം ആവശ്യമാണ് അത് ഇത് ചിലവാകുന്നതന് അസരിച്ചായിരിക്കും അതിൻ്റെ ഒരു ഇത് അപ്പം നമ്മുടെ ഈ നാടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ മൂലധനം മുടക്കേണ്ട കാര്യമില്ല കാര്യം വലിയ തരത്തിലുള്ള ബിസിനസൊന്നും ഇവിടെ നടക്കാറില്ല പിന്നെ ജീവിത വൃത്തിക്കായിട്ട് ഓരോരുത്തർ ഓരോ സംവിധാനങ്ങളും ഓരോരോ ഇത് തുടങ്ങുന്ന്ത് ചെറിയ പെട്ടിക്കടകൾ ചായക്കടകൾ തുണി ബിസിനസുകള് അതൊക്ക അതിൻ്റെ നമ്മൾക്ക് ഇവിടെ ഓടുന്നത് ഏത് ബിസിനസ്സാണ് അതനുസരിച്ചുള്ള ഇതേ പോവുകയുള്ളൂ പിന്നെ വലിയ ബിസിനസിനെ പറ്റിയൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല നമ്മൾ ചെറുകിട കച്ചവടക്കാരാണ് പിന്നെ സംരംഭം വലിയ വലിയ രീതിയിൽ സംരംഭങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻ്റിൻ്റെ ഭാഗത്ത് നിന്ന് ധന സഹായം പഞ്ചായത്ത് വഴി സ്വയം സ്വയം തൊഴിൽ സഹായമൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വഴിക്കും കുറെ പൈസയൊക്കെ നമുക്ക് ചിലവാകും ഇപ്പം പഞ്ചായത്തിൻ്റെ ആണെങ്കിലും ഗവൺമെൻ്റിൻ്റെ ആണെങ്കിലും ലോണൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് എളുപ്പത്തിലൊന്നും ഒന്നും കിട്ടാൻ മാർഗ്ഗമില്ല അപ്പം നമ്മുടെ കൈയ്യിൽ ഒരു മൂലധനം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായിരിക്കും ബിസിനസിന് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അനുഭവം വച്ചു ഞാൻ പറയുന്നത് പിന്നെ ബിസിനസ് ഒരു പ്രത്യേക നേക്കാണ് ബിസിനസ് മുന്നോട്ടു കൊണ്ടു പോകേണ്ടത് ആൾക്കാരുമായിട്ട് ഇടപഴകി അവരുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കി അത് അനുസരിച്ചു നിന്നാൽ മാത്രമേ അതൊരു തന്ത്രപരമായിട്ട് നിന്നാൽ മാത്രമേ മൂല കച്ചവടം മുന്നോട്ടു പോവുകയുള്ളൂ ബിസിനസ് നമ്മളുടെ ആ ഇത് അനുസരിച്ചിരിക്കും ബിസിനസ് എത്രത്തോളം മെച്ചപ്പെടും അതിൽ കിട്ടുന്ന ലാഭം അതുപോലെ കിട്ടുന്ന ലാഭം നമ്മൾ ചിലവാക്കാതെ ആ ലാഭം കൂടെ നമ്മൾ ഈ സംരംഭത്തിൽ മുടക്കി അങ്ങനെ കുറേ നാള് കഴിയുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് വരുമാനം എടുക്കാൻ പറ്റും അല്ലാതെ ബിസിനസ് തുടങ്ങി അതിൽ നിന്ന് നമ്മൾ ആദായം എടുത്തു കൊണ്ടിരുന്നാൽ ബിസിനസ് മുന്നോട്ട് പോകത്തില്ല പിന്നെ ബിസിനസുകാർ പല വഴികളിൽ ലോണൊക്കെ എടുത്ത് പിന്ന നാശ കൂമ്പാരത്തിൽ നിൽക്കുന്നവരുമുണ് അതൊക്ക ഓരോരുത്തരുടെ കഴിവ് അനുസരിച്ചിരിക്കും ബിസിനസ് ഇന്ന് ഞാൻ കണ്ടതിൽ ഏറ്റവും ലാഭമുള്ള ഒരു ഇത് ബിസിനസ് തന്നെയാണ് പിന്നെ മുന്നോട്ട് ജീവിക്കാനായിട്ട് നമുക്ക് കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയുള്ളൂ അതുപോലെ നമ്മുടെ ഒരു ഇത് അനുസരിച്ചായിരിക്കും നമ്മൾ ആൾക്കാരുമായിട്ട് ഇടപഴകുന്നത് അനുസരിച്ചായിരിക്കും ബിസിനസ് മുന്നോട്ട് പോവുന്നത് അതൊക്കെ കുറേ നാളൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുമുള്ളൂ ഇപ്പം ഈ കൊറോണ കാലമൊക്ക വന്നതിൽ പിന്നെ ബിസിനസുകാർക്ക് എല്ലാം പരാജയമാണ് കാര്യം ഓൺലൈൻ വഴി എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴിയാണ് ആൾക്കാരെ എടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുമ്പം നമുക്ക് തകർച്ചയുടെ വക്കിലാണ് നമ്മൾ അപ്പോൾ ഒരുപാട് പൈസ ലോണൊക്കെ എടുത്ത് ബിസിനസ് ചെയ്യുന്നവർക്ക് ആണ് അത് ഭയങ്കരമായിട്ട് ഒരു സങ്കടമാണ് ഇന്ന് പലരും പല രീതിയിലും കടക്കാരായി നിൽക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അധികം കടമെടുക്കാതെ പിന്നെ ചിലവനുസരിച്ചു ള്ള ബിസിനസ് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ എനിക്ക് ബിസിനസിനെ പറ്റി പറയാൻ പറ്റത്തുള്ളൂ